ഒരിക്കൽ ഞാനൊരു പിക്ച്ചർ വരച്ചിട്ടുണ്ടായിരുന്നു അന്ന് വരച്ചിട്ട് ആദ്യം കണ്ടപ്പോഴത്തേനും എനിക്കങ്ങനെ പ്രത്യേകിച്ച് പിക്ച്ചർ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല നോര്മലായിട്ടൊരു പിക്ച്ചർ വരച്ചു അതു മാത്രമേ എനിക്ക് തോന്നിയുള്ളു അതിനു ശേഷം എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊരിക്കൽ ആ പിച്ചർ കണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്നു തന്നെ അവരൊരിക്കൽ ആ പിക്ച്ചർ കണ്ടു കണ്ടിട്ട് അവരങ്ങനെ അധികം ഒന്നും പറഞ്ഞില്ല എന്താണ് കൊള്ളാം ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ ഒരാൾ എന്നോടു പറഞ്ഞു എന്ത് ഉദ്ദേശിച്ചാണ് ഈ ചിത്രം വരച്ചത് എന്നെന്നോട് എന്നെന്നോടു ചോദിച്ചായിരുന്നു അപ്പോൾ ഞാന് എന്താണ് ഞാന് പറഞ്ഞു ഇല്ല വെറുതെ ഇരുന്നപ്പോഴത്തേനും അങ്ങനെ മനസ്സിൽത്തോന്നി അതു കൊണ്ട് വരച്ചു എന്നു മാത്രമേ പറഞ്ഞുള്ളു പക്ഷെ അതിനു ശേഷം അവളാണെന്നോടു പറയുന്നത് ആ പിക്ച്ചർ അങ്ങനെ വെറുതെ വരച്ചതല്ല അതിന് കുറച്ച് ഇന്നർ മീനിംഗ്സൊക്കെ നമുക്കത് കാണുമ്പോഴത്തേനും തോന്നാറുണ്ട് എന്നു പറഞ്ഞു അപ്പോൾ ഞാന് ഞാന് പറഞ്ഞു അതെന്താ അങ്ങനെ എന്നു ഞാന് ചോദിക്കുകയുണ്ടായി അതിനു ശേഷം ഞാന് തന്നെയാണ് പിക്ച്ചർ വീണ്ടും എന്തിനു ചെയ്തു വീണ്ടും അതു തന്നെ ആ പിക്ച്ചർ തന്നിങ്ങനെ നോക്കിയത് കുറച്ചു നേരം ഇങ്ങനെ ഒബ്സര്വ് ചെയ്തപ്പോഴത്തേനും ആ എനിക്കും തോന്നിയായിരുന്നു അതിലെന്തൊക്കെയോ അര്ത്ഥം ഉള്ളതു പോലെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി അത് ഇങ്ങനെ തോന്നിയതിനു ശേഷം ഞാനതിങ്ങനെ ഒരുപാട് നേരം വാച്ച് ചെയ്തു അത് കുറേ നേരം ഒബ്സ്ര്വ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനു ശേഷം എനിക്ക് മനസ്സിലായി ആ പിക്ച്ചറിലെന്തോ ആഴത്തിലുള്ള എന്തോ ഒരു അര്ത്ഥം ഉണ്ട് ഉണ്ട് നമ്മൾ ഏതൊരു ചിത്ര ഓ ഏതൊരു ചിത്രത്തിലായാലും എന്തെങ്കിലും ഒരര്ത്ഥമോ അതിന് അതിനെന്തെങ്കിലും ഒരു മീനിംഗ് കാണുമത് വരയ്ക്കുന്നതിൽ പക്ഷെ നമുക്കത് പലപ്പോഴും അതു മനസ്സിലാകുന്നില്ല പക്ഷെ ഞാനങ്ങനെ കുറേ നേരമത് നോക്കിയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അതിലെന്തോ എന്തോ ഒരു ഡീപ്പ് മീനിങ്ങുള്ളതായിട്ട് തോന്നിയായിരുന്നു അപ്പോൾ അങ്ങനെ അത് പിന്നത് ഞാനിങ്ങനെ അവളോടിങ്ങനെ പറഞ്ഞു ആ എനിക്കും തോന്നി അപ്പോഴത്തേനും അവളവൾക്ക് തോന്നിയ കാര്യം എന്നോട് പറഞ്ഞു അവക്ക് അതിൽ തോന്നിയ മീനിങ്ങെന്താണെന്ന് അവളിങ്ങനെ പിക്ച്ചർ കണ്ടിട്ടവക്കു തോന്നിയ കാര്യം അവളിങ്ങോട്ടു പറഞ്ഞായിരുന്നു പറഞ്ഞു അപ്പം ഞാനുമത് കേട്ടപ്പോഴത്തേനും എനിക്കൊക്കെ ഏണ്ടും ഏകദേശം സേമാണെന്നു തോന്നി നമുക്ക് തോന്നിയ രണ്ട് മീനിങ്ങും ഏകദേശം സേമാണെന്നു തോന്നി അങ്ങനെ പിന്നെ പിന്നെ വരക്കുമ്പോൾ തോന്നി ചിത്രം വരക്കുമ്പോഴത്തേനും ഇതുപോലെ എന്തെങ്കിലും മീനിങ്ങോ അല്ലെങ്കിലെന്തെങ്കിലും നമ്മുടെ ഇതുമായിട്ടെന്തെങ്കിലും പ്രാധാന്യ നമ്മുടെ ജീവിതമായിട്ടെന്തെങ്കിലും റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വരയ്ക്കാനായിട്ടും തോന്നുമായിരുന്നു നമ്മൾ വെറുതെയൊരു പിക്ച്ചർ വരയ്ക്കുന്നതിനെക്കഴിഞ്ഞും അങ്ങനെ നമ്മളിപ്പം വെറുതേയൊരു ചിത്രം വരച്ചാൽത്തന്നെ നമ്മളൊരു വര വരച്ചാൽത്തന്നെയും അതിലും എന്തെങ്കിലും ഒക്കെ മീനിങ്ങുണ്ട് മീനിങ്ങുള്ളതാണ് നമ്മളൊരു വര വരച്ചാൽത്തന്നെയും എന്തെങ്കിലും ഒക്കെ മീനിങ്ങുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചിത്രം വരക്കുമ്പോഴത്തേനും മീനിങ്ങോടു കൂടി വരക്കുമ്പം നമുക്ക് അതില് നിന്നും കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേഷന് കിട്ടും ഒരു ചിത്രത്തില് നിന്നു വേണം നമുക്ക് കമ്മ്യൂണിക്കേഷന് കിട്ടാം ലാംഗ്വേജ് മാത്രം അല്ല അതായത് സിമ്പൽ മാത്രം അല്ല ഒരു പിക്ച്ചറിലൂടെയും നമുക്ക് കമ്മ്യൂണിക്കേഷന് അവൈലബിളാണ് അതു മനസ്സിലായി നമുക്കേതെങ്കിലുമൊക്കെ സാഹചര്യത്തിലങ്ങനെ ഉപയോഗിക്കാമല്ലോ എല്ലാ ചിത്രത്തിലും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ മീനിംഗ് വരുന്ന രീതിയില് ചിത്രം വരയ്ക്കാം എന്നു തോന്നി അങ്ങനെ ആ ചിത്രമാണെനിക്കിങ്ങനെ അതിലേറെ അര്ത്ഥമോ പ്രാധാന്യം ഒക്കെ ഉള്ളതായിട്ട് മനസ്സില് തോന്നിയിട്ടുള്ളത്